ഉൾനാട്ടിലെ കളികളെന്ന് പറഞ്ഞാൽ തീർത്തും പട്ടണത്തിലെ കളികളും ഉൾനാട്ടിലെ കളികളും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണുള്ളത് കാരണം ഉൾനാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് ഇളകിയാണ് നമ്മൾ കളിക്കുന്നത് അതിപ്പോൾ ക്രിക്കറ്റായാലും ഫുട്ബോളാണെങ്കിലും ആസ്വദിച്ച് കളിക്കാണ് ചെയ്യാറ് എന്നാൽ പട്ടണത്തിലേക്ക് വരുമ്പോൾ നേരെ മറിച്ചവർക്ക് കളിക്കാൻ ഇടമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നേന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ആശ്രയിക്കുന്നത് ഓൺലൈൻ ഗെയിംസ്നെയാണ് ഈ ഓൺലൈൻ ഗെയിംസ് ആണ് പട്ടണത്തിൽ കൂടുതലും നട കളിക്കാറുള്ളത് അതുകൊണ്ട് എന്തുകൊണ്ടും പട്ടണത്തിലെ ഗെയിമിനെ അപേക്ഷിച്ച് ഉൾനാട്ടിലെ ഗെയിമാണ് എന്തുകൊണ്ടും ഏറ്റവും നല്ലത്